സ്കൂളിന് പുറത്തുള്ള ട്യൂഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻ ആവശ്യമാണ് കുട്ടികൾക്ക് കാരണം പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ ഒത്തിരിയുണ്ട് കുട്ടികൾ വീട്ടിൽ വന്നിട്ട് ഇതെന്താണ് അതെന്താണെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ഒരു ഒരു അച്ഛനെയും അമ്മനെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പപ്പായും മമ്മിയും കാരണം അവർക്ക് ഞാന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റില്ലാരുന്നു അവർക്കറിയില്ലാരുന്നു പക്ഷെ ഒരു ട്യൂഷനിൽ വിടുമ്പോൾ അവിടുത്തെ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ട്യൂഷന് പോയി കഴിഞ്ഞ് നമ്മുടെ സംശയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം അവർ പരിഹരിച്ച് തരുവാൻ ഒരു ട്യൂഷൻ ടീച്ചറിനോ അല്ലെങ്കിലൊരു ട്യൂഷൻ സാറിനോ സാധിക്കുമായിരുന്നു എന്ത് സംശയങ്ങൾ ചോദിച്ചാലും നമുക്കത് ക്ലിയറ് ചെയ്താൻ പറ്റും വിദ്യാഭ്യാസം കുറവുള്ള ഒരു അച്ഛന് അപ്പൻ്റെയോ അമ്മയുടെയോ മക്കൾക്ക് സ്കൂളിൽനിന്ന് പറഞ്ഞ് വിടുന്ന അറിവ് മാത്രം പോരാ ചിലപ്പോൾ സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വെരും അതൊക്കെ ഒന്ന് പരിഹരിക്കണമെങ്കിൽ ഒരു ട്യൂഷൻ അധ്യാപകന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്കൂളിന് പുറത്തുള്ള ട്യൂഷനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എനിക്കും ഒരു കുഞ്ഞുണ്ട് അവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു നമ്മൾ പഠിച്ച പ്രൊവേൻസേഷനോ നമ്മൾ പഠിച്ച ലാംഗ്വേജിലോ അല്ല അവർ പഠിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ അവന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ ഞാൻ നേഴ്സറി വിട്ട് കഴിഞ്ഞപ്പത്തേനും അവിടുന്ന് സ്കൂളിൽനിന്ന് സി എ ടി ക്യാറ്റ് ഡോഗ് എന്നൊക്കെ പഠിപ്പിച്ച് വിട്ടു ഞാനിവിടെ വന്നിട്ട് സി എ റ്റി ക്യാറ്റ് ഡി ഓ ജി ഡോഗ് അങ്ങനെ അവനെ പഠിപ്പിച്ച് വിട്ടു ഇവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവന് അറിയില്ല ടീച്ചർ പറഞ്ഞപ്പോൾ എഴുതാൻ അന്ന് വൈകുന്നേരം ആ ടീച്ചറെന്നെ വിളിച്ചു എന്നിട്ടെന്നോട് ചോദിച്ചു കൊച്ചെങ്ങനെയാണ് അങ്ങനെ പഠപ്പിച്ച് വിടുന്നത് സി എ റ്റി ക്യാറ്റ് ഡി ഓ ജി ഡോഗ് ബി എ റ്റി ബാറ്റ് അങ്ങനെയാണോ പഠിപ്പിച്ച് വിടുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ അങ്ങനെയാ പഠിപ്പിച്ച് വിടുന്നത് കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ബാക്കിയുള്ള പിള്ളേരും പഠിക്കുന്നതും കണ്ടിരിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചിന്നീ തൊട്ട് അവനെ പഠിപ്പിച്ച് വിടേണ്ട അതങ്ങനെയെല്ലാ അതിൻ്റെ പ്രൊണൗൺസേഷൻ ശരിയല്ല ക് എന്നുകൂട്ടി ക് ഇറ്റ് സി ക് അറ്റ് ഒ അപ്പ് അങ്ങനെയൊക്കെ എന്തോ പ്രൊനൗൺസേഷനില് മിസ്റ്റേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ച് വിടരുത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇവന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വന്നു കാരണം ഇവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവരുടെ പ്രവണസേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലാതെ വന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞ് ഇവിടെ അവിടെത്തന്നെ അവനെ ഞങ്ങൾ സ്കൂളിൽനിന്ന് പഠിപ്പിച്ച് വിട്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൽ കെ ജി യു കെ ജി ഒക്കെ അവനെ സ്കൂളിൽനിന്ന് തന്നെ പഠിപ്പിച്ചു വിട്ടു ഒന്നാം ക്ലാസ് വന്നു രണ്ടാം ക്ലാസൊക്കെ വന്ന് കഴിയുമ്പത്തേന് എനിക്കിവരുടെ പ്രവണൈസേഷൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലൊരു സ്കൂളിൽ പഠിച്ച കുട്ടിയാന്നിപ്പോൾ എനിക്കിവരുടെ അത് മനസ്സിലാകാതെ വന്നു മനസ്സിലാകാതെ വന്ന് കഴിഞ്ഞപ്പത്തേനും ഇവർ അവിടുന്ന് സ്കൂളിൽനിന്ന് തന്നെ സ്കൂളിൽ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചർമ്മാർ തന്നെ ഇവർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനാ ട്യൂഷൻ ക്ലാസിലിവനെ വിട്ടു അപ്പം ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷന് ടീച്ചറും മൊബൈലിൽ കൂടെ ഇവന് ട്യൂഷൻ എടുക്കുമ്പം ഞാനിത് ശ്രദ്ധിച്ച് കേട്ട് കൊണ്ടിരുന്നു അപ്പം വളരെ വ്യക്തമായിട്ട് അവർ ആ ട്യൂഷന്റെ ക്ലാസ്സില് പഠിപ്പിക്കുന്നതിനെക്കാളും നന്നായിട്ട് സ്കൂളില് ഫുള്ള് ഇംഗ്ലീഷിലാണ് ട്യൂഷന് കുറച്ച് മലയാളത്തിലൂടെ പറഞ്ഞു കൊടുക്കും അപ്പം അവർക്കും നല്ല വ്യക്തമായിട്ട് ഇവന് മനസ്സിലാവുന്നുണ്ട് അതുപോലെത്തന്നെ എനിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചു അത് അപ്പം നമുക്കത് വളരെയധികം ഉപകാരമായി അതുകൊണ്ട് സ്കൂളിന് പുറത്തുള്ള ട്യൂഷന് ഒരിക്കലും ഞാനെതിരല്ല എനിക്കത് എപ്പോളും ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിപ്പോൾ എൻ്റെ രണ്ട് പിള്ളേരെയും ട്യൂഷന് വിടുന്നും ഉണ്ട് കാരണം നമുക്ക് വല്ലതും ഇപ്പത്തെ പണ്ടത്തെ വിദ്യാഭ്യാസം വെച്ച് ഇപ്പത്തെ ഇപ്പത്തെ വിദ്യാഭ്യാസത്തിനും പലതും പറഞ്ഞ് കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പം മറ്റൊരു അധ്യാപകൻ്റെ ഒരു അധ്യാപികയുടെ സഹായം തേടുന്നത് ഒരു തെറ്റോ പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ട്യൂഷൻ അതുകൊണ്ട് തന്നെ ട്യൂഷൻ എന്തുകൊണ്ടും നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിള്ളേരുടെ പിന്നെ വേ സ്കൂളില്നിന്ന് പഠിച്ചിട്ട് പിള്ളേർ വന്ന് നമ്മളോട് സംശയം ചോദിക്കുമ്പോള് നമുക്കത് പറഞ്ഞ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾക്ക് അതൊരു വിഷമമാവും പിള്ളേർക്കും അതൊരു വിഷമമാവും അവർ പിന്നെ അതെന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും അതുകൊണ്ട് ട്യൂഷൻ എപ്പോഴും നല്ലതാണ് അത് പുറത്തുള്ള ട്യൂഷനാണെങ്കിൽ പുറത്ത് നിന്ന് ഒരാ ഒരാളുടെ സപ്പോർട്ടും സഹായവും പിള്ളേർക്ക് എപ്പളും കിട്ടുന്നത് നല്ലതാണ് ഒരു പക്ഷെ നമ്മളോട് കാരണവന്മാരായ നമ്മളോട് അയ്യോ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ അച്ഛയ്ക്കറിയത്തില്ലല്ലോ എന്ന് ചോദിച്ച് എന്ന് വിചാരിച്ച് പിള്ളേർ ചോദിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷെ ഒരു ട്യൂഷനുണ്ടെങ്കിൽ കുട്ടികൾ തീര്ച്ചയായിട്ടും അവർ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറിനോടോ ടീച്ചര്നോടോ ഇതെന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് ട്യൂഷൻ എപ്പോഴും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം